വൈവിധ്യമാർന്ന സസ്യജാലങ്ങളെയും മൃഗങ്ങളേയും കാണാനായി വിനോദസഞ്ചാരികൾ ഏറ്റവുമധികം സന്ദർശിക്കുന്നത് കേരളത്തിലെ പല ജില്ലകളെയുമാണ് കേരളം എക്കാലത്തും ടൂറിസം മേഖലയിൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നുണ്ട് കേരളത്തില് ഒരുപാട് നാഷണൽ പാർക്കുകൾ സ്ഥിതി ചെയ്യുന്നുണ്ട് ഇരവിക്കുളം നാഷണൽ പാർക്ക് അതുപോലെ തന്നെ നെയ്യാർ വന്യജീവിസങ്കേതം ആറളം വന്യജീവിസങ്കേതം എല്ലാം ഈ ഇരവിക്കുളം നാഷണൽ പാർക്കില് വളരെ അതി പ്രസിദ്ധമായ നീലക്കുറിഞ്ഞി നീലക്കുറിഞ്ഞി പൂക്കൾ നമുക്ക് കാണാൻ സാധിക്കുന്നു കൊല്ലത്തില്ത്തന്നെ ഒരു വർഷത്തിൽ വളരെ ചുരുക്കം ഏതോ ഒരു സമയത്ത് മാത്രമാണ് ആ ഒരു പുഷ്പം വിടരുന്നത് അത് കാണാനായിട്ട് ഒരുപാട് വിനോദസഞ്ചാരികൾ ഇടുക്കി ജില്ലയിലെത്തിച്ചേരാറുണ്ട് പിന്നെ വരയാടുകൾ വരയാടുകളവിടുത്തെ എക്കാലത്തെയും വളരെയധികം പ്രാധാന്യമുള്ള ഒരു ഒരു ജീവിയാണ് ഒരുപാട് വരയാടുകളെ നമുക്ക് ഇരവിക്കുളം നാഷണൽ പാർക്കിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് പിന്നെ ചിന്നയാർ നെയ്യാർ വന്യജീവി സങ്കേതത്തെക്കുറിച്ച് പറയാണെങ്കിൽ ഡിസമ്പർ ഏപ്രിൽ മാസം നല്ല തണുപ്പുള്ള മാസത്തിലാണവിടെ കൂടുതൽ വിനോദസഞ്ചാരികളെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് പിന്നെ കോട്ടയം ജില്ലയെടുക്കുവാണെങ്കില്ത്തന്നെ കോട്ടയം കുമരകം പക്ഷി സംരക്ഷണ കേന്ദ്രമുണ്ടവിടൊരു ശാന്തമായന്തരീക്ഷമായതുകൊണ്ടു തന്നെ ഒരുപാട് പക്ഷികളവിടെ വന്ന് വിശ്രമിക്കുക വിശ്രമിക്കുന്നതൊക്കെ നമുക്കു കാണാനായിട്ട് സാധിക്കും ഇതൊക്കെ വളരെയധികം വിനോദസഞ്ചാരികളെ വളരെയധികം പിടിച്ചുനിർത്തുന്ന ഒന്നാണ് അതുപോലെ തന്നെ നമ്മുടെ നെയ്യാർ നെയ്യാർ വന്യജീവി സങ്കേതത്തില് ഏഷ്യയിലെത്തന്നെ എലിഫൻറ്റ് അതുപോലെ തന്നെ ടൈഗർ അതുപോലെ തന്നെ പലയധികം മൃഗങ്ങളെ നമുക്ക് കാണാൻ സാധിക്കുന്നു

പുലി അങ്ങനെ ഒട്ടനേകം മൃഗങ്ങള് അവിടെയുണ്ട് പിന്നതുപോലെ തന്നെ നമ്മുടെ വിനോദസഞ്ചാരങ്ങളെക്കുറിച്ച് പറയുവാണങ്കിൽ ജടായുപ്പാറ എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഒരു പാറ സ്ഥിതി ചെയ്യുന്നുണ്ട് നമ്മുടെ കേരളത്തില് അപ്പോള് ആ പാറയെക്കുറിച്ച് പറയാണെങ്കില് ഒടിഞ്ഞ ചിറകുമായുള്ള ഒരു ജടായുവെ ആണ് ആ പാറ ആ ശില്പം സൂചിപ്പിക്കുന്നത് വളരെയധികം സസ്യങ്ങളാലും അതുപോലെ തന്നെ വൈവിധ്യമാർന്ന സസ്യങ്ങളാലും മൃഗങ്ങളാലുമൊക്കെ വളരെയധികം വിനോദസഞ്ചാരികളെ പിടിച്ചുനിർത്തുന്ന ഒരു സ്ഥലമാണ് കേരളം അതുപോലെ തന്നെ വളരെയധികം വിനോദസഞ്ചാരികളിവിടെ ഓടി എത്തുന്നത് നമ്മുടെ ഏറ്റവും നമ്മുടെ കുട്ടനാട് അല്ലെങ്കിൽ ആലപ്പുഴ ജില്ലയിലേക്കാണ് ആലപ്പുഴ ജില്ലയെ നോക്കുമ്പോള് ഒരുപാട് തരത്തിലുള്ള പ്രത്യേകതകളാലപ്പുഴ ജില്ലയ്ക്കുണ്ട് കരിമീൻ പൊള്ളിച്ചത് അതുപോലെ തന്നെ ഹൗസ് ബോട്ട് ഇതെല്ലാം കാണാനും അതുപോലെ തന്നെ ആസ്വദിക്കാനുമായിട്ടൊരുപാട് വിനോദസഞ്ചാരികളാലപ്പുഴ ജില്ലയിലേക്ക് വരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കാം